മലയാള ഭാഷ സംസാരിക്കുന്ന ഒരാളായതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നുണ്ട് കാരണം എനിക്ക് എൻ്റെ കാര്യങ്ങളും എൻ്റെ ചിന്താഗതികളുമൊക്കെ പുറത്ത് മറ്റുള്ളവരോട് സംസാരിക്കാൻ സാധിക്കുന്നത് മലയാളത്തിലാണ് അതു കൊണ്ടു തന്നെ എനിക്ക് ആ ഒരു ഭാഷ സംസാരിക്കുന്നതിൽ ഞാൻ വളരേ അഭിമാനവതിയാണ് മാത്രമല്ല എനിക്ക് മലയാളത്തിലെ ഏറ്റവും കൂടുതലിഷ്ടമുള്ള വാക്ക് എന്ന് പറയുന്നത് സ്നേഹം എന്നുള്ള വാക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വാക്കാണ് അതിന് പല കാരണങ്ങളും ഉണ്ട് സ്നേഹം എന്ന് പറയുന്നതും സ്നേഹിക്കപ്പെടുക എന്നുള്ളതും വളരേ മഹത്തരമായിട്ടുള്ള ഒരു ഒരു കാര്യമായിട്ടാണ് ഞാൻ കണക്കു കൂട്ടുന്നത് സ്നേഹം എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരാളെ സ്നേഹിക്കാനും പറ്റും ഒരാൾക്ക് നമ്മളെ സ്നേഹിക്കാനും പറ്റും ആ ഒരു കാര്യം എന്ന് നോക്കുമ്പോൾ നമ്മൾ എന്താണ് ഈ ഭൂമിയിൽ ജനിച്ചതിൽ ഒരുപാട് നല്ല നല്ലതാണ് എന്നുള്ള ഒരു ചിന്താഗതിയാണ് എനിക്ക് സ്നേഹം എന്ന് പറയുമ്പം നമുക്ക് പലർക്കും കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല നമുക്ക് ആരോടെങ്കിലും ഒരിഷ്ടം തോന്നിയാൽ അവർക്ക് നമുക്ക് സ്നേഹം കൊടുക്കാം അത് ഉമ്മയോടാവാം ഭർത്താവിനോടാവാം മക്കളോടാവാം സുഹൃത്തുക്കളോടാവാം ഒരു നമ്മൾ നമ്മൾ എത്രത്തോളം നമ്മളെ അടുത്തറിയുന്നോ അത്രത്തോളം നമുക്ക് ഒരാളെ സ്നേഹിക്കാനും അയാൾക്ക് നമ്മളെ സ്നേഹിക്കപ്പെടാനും സാധിക്കും അതു കൊണ്ടു തന്നെ സ്നേഹം എന്നുള്ള വാക്ക് എനിക്ക് വളരേ ഇഷ്ടമുള്ളൊരു വാക്കാണ് അത്കൊണ്ട് എനിക്ക് എൻ്റെ ഉമ്മയേയും എൻ്റെ ഉമ്മയെയും എൻ്റെ ഹസ്ബെൻ്റിനെയും എൻ്റെ കുട്ടിയേയും എനിക്ക് നല്ല രീതിയിൽ സ്നേഹിക്കാനും സാധിക്കുന്നുണ്ട് സ്നേഹം എന്നുള്ള പദം ഞാൻ ഇടക്കക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് തവണ നമ്മൾ സംസാരത്തിലും പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് സ്നേഹം എന്നുള്ളത് അതുകൊണ്ട് ഞാൻ സ്നേഹം എന്ന വാക്ക് ഉപയോഗിക്കാനും പ്രയോഗിക്കാനും അത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് മാത്രമല്ല മലയാളം സംസാരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു